ഹലോ ആ ഇത് ഹോട്ടൽ അല്ലേ ഞാൻ കുറച്ച് മുമ്പ് വിളിച്ചിരുന്നു ഞാൻ ഫുഡ് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നേ ആ അത് തന്നെ ആഹാ ഹാ ഹാ അതു തന്നെ അതു തന്നെ ആ അപ്പോൾ ഞാൻ ഇപ്പോൾ പുറത്തേക്ക് പോകുകയാണ് അപ്പം അതിൻ്റെ കാരണം കൊണ്ട് എനിക്ക് ഇപ്പം ഫുഡ് വേണ്ട അത് ഞാൻ ക്യാൻസൽ ചെയ്യുകയാണ് നിങ്ങൾ ഫുഡ് ഒന്നും പാക്ക് ചെയ്തിട്ടൊന്നും ഇല്ലല്ലോ കൊടുത്ത് അയക്കാൻ ആയിട്ട് ആ സോറി കേട്ടോ ഞാനത് പറയാൻ കുറച്ച് ലേറ്റ് ആയി പോയി അല്ലേ അത് കുഴപ്പമില്ല എന്താണെന്ന് വെച്ചാൽ ഞാൻ നമ്മൾ ചെയ്തു തന്നേക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ പേയ്മെൻറ്റ് വേണമെങ്കിൽ നമ്മൾ ചെയ്തേക്കാം നിങ്ങൾ എന്തായാലും ഫുഡ് ഒന്ന് ക്യാൻസൽ ചെയ്തേക്ക് നമുക്ക് ആവശ്യമില്ല അത് ചെറിയ പേയ്മെൻറ്റ് എന്തെങ്കിലും വേണമെങ്കിൽ നമ്മൾ ചെയ്തേക്കാം ആ ഓക്കേ ഓക്കേ

അല്ല ഞാൻ ഇപ്പോൾ പുറത്തേക്ക് പോകുകയാണ് അത് കൊണ്ടാണ് ഞാൻ അത് ക്യാൻസൽ ചെയ്യുന്നത് ഇത് ഇപ്പോൾ ഇവിടെ കൊണ്ട് വന്ന് കഴിഞ്ഞാലും കഴിക്കാൻ ആരും ഇല്ലേ ആ അല്ല അത് ക്യാൻസൽ ചെയ്തോളു

ആ ഓക്കെ എന്നാൽ താങ്ക് യൂ കേട്ടോ